ഞാൻ ഈ അടുത്തിടെ ആഘോഷിച്ച ഒരു ഉത്സവമാണ് വയനാട് ജില്ലയിലെ വള്ളിയൂർക്കാവുത്സവം ഏറെ പ്രശസ്തമായൊരു ഉത്സവമാണിത് വയനാട് ജില്ലയിൽ താമസിക്കുന്ന ജനങ്ങൾ മാത്രമല്ല മറ്റു ജില്ലകളിലുള്ള ഒരുപാട് ജനങ്ങളും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഉത്സവമാണിത് എല്ലാ ജില്ലയിൽ നിന്നും അതുപോലെ വയനാടിലുള്ള എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണിത് ആനകളും ചെണ്ട മേളങ്ങളും കളിപ്പാട്ടങ്ങളും കുപ്പിവളകളും ആകാശത്തൊട്ടിലും മറ്റും നിറഞ്ഞ ഒരു വലിയ ഉത്സവമാണിത് ഞങ്ങൾ രാത്രി പുറത്തിറങ്ങി ഉത്സവം നടക്കുന്ന അന്നു രാത്രി വീടുകളിൽ നിന്നും എല്ലാവരും ഒന്നിച്ച് പുറത്തിറങ്ങി അവിടെപ്പോയി കളിപ്പാട്ടങ്ങളും കുപ്പിവളകളുമൊക്കെ വാങ്ങിക്കുകയും ആകാശത്തൊട്ടിലുകളിലും മറ്റും കയറുകയും ചെയ്യും ഇങ്ങനെയാണ് ഞങ്ങൾ ഈ ഉത്സവം ആഘോഷിക്കാറ്